ഇപ്പോൾ നമ്മള് വീട്ടില് എൽ പി ജി സിലിണ്ടറൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് നല്ല രീതിയിലുള്ള സുരക്ഷ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടർണക്ക് എടുക്കേണ്ടതുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ അതിൻ്റെ പൈപ്പിനും കാര്യങ്ങളൊക്കെ നമ്മള് കറക്റ്റായിട്ടാണോ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ സിലിണ്ടർ ലീക്കുണ്ടോ സിലിണ്ടറിന് ഇപ്പോൾ എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പോത്തന്നെ നമ്മള് ഇവരുടെ ഓഫീസിലേക്കൊക്കെ വിളിച്ചിട്ടത് അത് മാറ്റിത്തരാനൊക്കെ പറയണം പിന്നെ അതിനു മുന്നേ നമ്മള് സിലിണ്ടർ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനുള്ള മുൻകരുതലും കാര്യങ്ങളും എടുക്കണം കാരണം വീട്ടിൽ എടുത്ത് പുറത്ത് കുറച്ചു ദൂരെ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഫയർ ഫോഴ്സിനെയോ ആരെങ്കിലൊക്കെ വിളിക്കുക ഇല്ലെങ്കില് പല രീതിയിലുള്ള പ്രശ്നങ്ങള് നമ്മള് നേരിടേണ്ടി വരും പിന്നെ നമ്മളൊരു സിലിണ്ടർ വയ്ക്കുന്ന സമയത്ത് അതിനു പൈപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക നമ്മള് ഇതിലേക്ക് നമ്മള് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കുക പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഓണാക്കിയിട്ടിട്ട് പോവാണ്ട് ശ്രദ്ധിക്കുക അതാണ് മെയിനായിട്ടുള്ളത് എന്ന് പറയാൻ നമ്മളിപ്പോൾ എന്തെങ്കിലൊരു കാപ്പിയോ എന്തെങ്കിലും ഒക്കെ വെച്ചു കഴിഞ്ഞാല് നമ്മളത് ഓണാക്കിയിട്ട് നമ്മള് വേറെ നമ്മുടെ പണിയും നോക്കി പോകും അപ്പോൾ അത് വറ്റിത്തീരുന്ന വരെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അത് വെള്ളം മറിഞ്ഞിട്ട് ചിലപ്പോൾ കെട്ടു പോയിക്കഴിഞ്ഞാല് ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പെട്ടന്ന് വന്നിട്ട് നമ്മള് തീപ്പെട്ടിയൊക്കെ ഉരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് നല്ലതാണ്